ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണ് നിങ്ങൾക്ക് വളർത്താൻ ഇഷ്ടം പൂക്കളോ പഴങ്ങളോ അതോ പച്ചക്കറികളോ അതും എന്തുകൊണ്ട് ചെടികൾ വളർത്തുകയെന്നു പറയുമ്പോൾ എല്ലാ ചെടികളും വളർത്താൻ ഇഷ്ടമാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള ചെടി പച്ചക്കറികൾ ഞാനാണ് എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാനെല്ലാം വളർത്താറുണ്ട് പൂക്കളേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന പഴങ്ങളോ പച്ചക്കറികളോ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ തന്നെ വിത്ത് കിട്ടുമ്പോൾ ഞാൻ തന്നെ അത് പാകി ഞാൻ തന്നെ തൈയാക്കിയിട്ട് ഞാൻ തന്നെ അതിനെ പരിപോഷിപ്പിച്ച് നല്ല രീതിയിൽ എടുക്കാറുണ്ട് വാഴയാവട്ടെ ഏത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും പഴങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാറുള്ളത് പല പൂക്കളെക്കാളും ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അതാണ് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് ചക്കപ്പഴം അമ്പഴങ്ങ ചാമ്പക്ക പിന്നേ മുള്ളൻചക്ക അതൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ കൈപ്പങ്ങ ഉണ്ട് പാവക്ക ഉണ്ട് പിന്നെ കുമ്പള ഉണ്ട് മത്തനുണ്ട് ഇതൊക്കെ അതുപോലെതന്നെ നമ്മൾക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് അത് വളർത്താൻ തന്നെ ഇപ്പോൾ നല്ല ഓപ്പർച്ച്യൂനിറ്റീസ് ആണല്ലോ ഒരുപാട് ഗുണമേന്മയുള്ള തൈകൾ നമുക്ക് പല രീതിയിലും വാങ്ങിക്കാൻ കിട്ടും ബഡ്ഡിംഗ് തൈകൾ കിട്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കുകയോ നമുക്ക് പെട്ടെന്ന് ഫലം അതിൻ്റെ പഴങ്ങൾ ആയാലും പച്ചക്കറികൾ ആയാലും നമുക്ക് വേഗം കിട്ടും ഇപ്പോൾ എന്നെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നതും പൂക്കളേക്കാളും ഇഷ്ടപ്പെടുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതും പഴങ്ങളും പച്ചക്കറികളുമാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണമേന്മയുള്ള പഴങ്ങളും പച്ചക്കറിയും നമുക്ക് തന്നെ നമ്മുടെ ഫാമിലി യൂസ് ചെയ്യാമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളോടുള്ള തൈകൾ ഞാൻ എവിടെ നിന്ന് കിട്ടിയാലും എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ എവിടെ നിന്നും നല്ല ഗുണമേന്മയുള്ള വിത്ത് ശേഖരിച്ച് ഞാൻ തന്നെ എൻ്റെ പരിപാലനം ഫുള്ള് ഞാൻ ഏറ്റെടുക്കും ഞാൻ തന്നെ ചെയ്യും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കൃഷി ഇത് വളർത്തുന്ന കാര്യത്തിൽ പിന്നെ പൂക്കൾ അത്ര നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല പൂക്കളിൽ തന്നെ ഞാൻ മല്ലിക പിന്നെ മുല്ലപ്പൂ മുല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്മെല്ല് വരും ഇപ്പോൾ രണ്ടുമൂന്നു മുല്ലപ്പൂ തൈ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഉണ്ടെങ്കിൽ നല്ല സ്മെല്ല് ആയിരിക്കും അപ്പോൾ അതും നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചെടുത്തോളം പൂക്കളെക്കാളും നമുക്ക് ഗുണമേന്മയുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാനും അത് സുഖമായിട്ട് നമ്മൾ വേണ്ട രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം നല്ല വൃത്തിയായിട്ടുള്ള ഫുഡ് ഇപ്പോൾ തക്കാളി ആയാലും പാവയ്ക്ക ആയാലും കുമ്പളങ്ങ ഇതൊക്കെ നമുക്ക് ഏറ്റവും പെട്ടന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സംഗതിയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള നമുക്ക് ഈ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും അതിനെക്കാളും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഹെൽത്തിയായിട്ട് നമുക്ക് മുന്നോട്ടു പോവാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻ്റ് വെജിറ്റബിൾസ് ആണ് പൂക്കൾ ഉപയോഗത്തിന് നമ്മൾ പൂക്കൾ തന്നെ വേണം എന്നുണ്ട് പൂക്കൾ ഉപയോഗത്തിന് നമ്മൾ പൂക്കൾ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ എനി കൃഷിയായിട്ടൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല അതൊക്കെ നമുക്ക് നോർമൽ നമുക്ക് ഒരു ആലങ്കാരികമായിട്ട് അലങ്കാരത്തിന് വേണ്ടി മാത്രമാണ് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുക ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ടു പോകാനുള്ള ഒരാളെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് വേണ്ട രീതിയിൽ പഠിച്ച് കഴിഞ്ഞാൽ ജെവമായ ജെവ ജൈവക്കൃഷി എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് നല്ല ഫലങ്ങൾ ഫ്രൂട്ട്സിന് ആയാലും വെജിറ്റബിൾസ് ആയാലും നമുക്ക് കിട്ടും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം ഇപ്പോൾ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് സൊ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യണതും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അതിൽ ചെടികളെ സംബന്ധിച്ചെടുത്തോളം കൃഷിയെ സംബന്ധിച്ചെടുത്തോളം വളർത്താൻ ഇഷ്ടപ്പെടുന്നതും പഴങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളോ ആയിട്ടുള്ളതാണ് മെയിനായിട്ട് ഇതുതന്നെയാണ് റീസണ് നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറി വേസ്റ്റ് തന്നെ ഉപയോഗിച്ചിട്ട് തന്നെ വളമോ വളം ജൈവക്കൃഷി ഒക്കെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമുക്കുതന്നെ യൂസ് ചെയ്യാൻ കഴിയും ഓക്കേ